എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയങ്ങളിൽ എനിക്ക് ബയോളജിയിൽ ഭയങ്കര താൽപര്യം ഉണ്ടായിരുന്നു ബയോളജി കാര്യങ്ങൾ ചെയ്യാനും അതൊക്കെ പിന്നെ സയൻസ് ആയിരുന്നു ഞാൻ പ്ലസ് ടു എടുത്തത് അപ്പോൾ കെമിസ്ട്രി ബയോളജി ഫിസിക്സ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് അത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്